ഞാൻ ആർക്കെങ്കിലും സമ്മാനമായിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോന്ന് ചോദിച്ചിട്ടുള്ള എൻ്റെ പ്രണയി താവായിട്ടുള്ള ഒരു ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കവിത എഴുതുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് മാഗസിനിലാണ് അത് പ്രകാശനം ചെയ്തിട്ടുള്ളത് അവരോടുള്ള സ്നേഹത്തിനുനെക്കുറിച്ചിട്ടും പറഞ്ഞിട്ടുള്ളൊരു കവിതയാണ് പിന്നീട് അത് സമ്മാനമായിട്ടു നൽക്കുകയാണ് ചെയ്യുന്നത് അയാൾക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പം അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടൊന്നു ചോദിച്ചാൽ നന്നായിട്ട് അത് ഇഷ്ടപ്പെട്ടു കാരണം ആളോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം മാഗസിനിലൂടെ പ്രധാ പ്രകാശനം ചെയ്തതിന് ശേഷമാണ് ഞാൻ അയാൾക്ക് കൈമാറുന്നത് അതായത് എൻ്റെ ഉള്ളില് ഇങ്ങനെയെല്ലാം കാര്യങ്ങള് ഉണ്ടായിരുന്നു ഞാന് എന്താണ് അല്ലങ്കിൽ എൻ്റെ സ്നേഹം എങ്ങനെയാണെന്നുള്ളത് പ്രടിപ്പിക്കാൻ പറ്റിട്ടുള്ളൊരു അവസരം എനിക്ക് അന്ന് കോളേജ് മാഗസിനിലൂടെ ലഭിച്ചു അതുവഴി അത് കൊടുക്കുന്ന സമയത്ത് അയാൾക്കും അത്രയും വലിയൊരു മാഗസിനില് എഴുതിയിട്ട് അത് അയാളിലേക്ക് എത്തിക്കുന്ന സമയത്തുണ്ടാവുന്ന അയാളുടെ സന്തോഷം വലുതായിരുന്നു അപ്പം മറക്കാൻ പറ്റാത്ത ഒരു അനുഭവായിരുന്നു ആ ഒരു കവിത അയാൾക്ക് സമ്മാനമായിട്ട് കൊടുത്തപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്